ഒരു രാഷ്ട്രം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഭരണകൂടവും വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഇന്ത്യ രാഷ്ട്രം ഭാരതം എന്ന ഒരു സങ്കല്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഭാരതം സ്വതന്ത്രമായി ഈ ഭാരതം സ്വതന്ത്രമാവുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലേക്ക് നീങ്ങിയാൽ അതിൽ ചില കാര്യങ്ങൾ എടുത്ത് പറയാനുള്ളത് ഈ രാജ്യം സ്വാതന്ത്രമാവുന്നതിന് വളരെ ഏറെ വളരെ ഏറെ ത്യാഗം സഹിച്ച വളരെ നിർണായകമായ സ്വാധീനമുള്ള നല്ല ധീര നേതാക്കളുണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം ഭാരതത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നേതാക്കന്മാർ രൂപകൽപന ചെയ്തു അവർ ഒരു യൂണിറ്റിയിൽ എത്തി ഒരുമിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് രാപകൽ അതിധ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏറെ പ്രസാംബരവും ആദരണീയവുമാണ് അങ്ങനെയുണ്ടായ യൂണിറ്റിൽ നിന്നു ഉടലെടുത്തതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു വലിയ സമൂഹം വലിയ ഒരു പ്രസ്ഥാനം മഹാത്മാഗാന്ധി നമ്മൾ ഏറെ അറിയപ്പെടുന്ന ഈ രാഷ്ട്രത്തിൻ്റെ തന്നെ പിതാവായി നിലനിൽക്കുന്ന മഹാത്മജി അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ അദ്ദേഹം വിദ്യാഭ്യാസത്തിന് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിലുണ്ടായ അദ്ദേഹത്തിൻ്റെ ഉപരിപഠനത്തിന് വിദേശരാജ്യങ്ങളിൽ പോകുന്ന സ്ഥലം പോവുന്ന വഴി ഉണ്ടായ യാത്ര യാത്രയിലുണ്ടായ കണ്ണുകൾക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് കാണപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിന് ഏറെ സ്വാധീനിക്കുകയും അതിൽ നിന്നാണ് അദ്ദേഹം ഈ ഭാരതത്തിൽ വന്നു സാധാരണ പെട്ട ആൾക്കാരുടെ മുമ്പിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ ഒരു ഭാരതത്തിന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ള ഏക സങ്കല്പത്തിൽ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുകയും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ കീഴിൽ ഒരു പ്രസ്ഥാനമായി വളർന്ന് അതിൽ നേതൃത്വം കൊടുത്ത മഹാത്മജി വളരെയേറെ ബഹുമാനം ബഹുമാനിക്കേണ്ടതാണ് അദ്ദേഹത്താൽ ഉടലെടുത്ത അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന വളരെ ധീരരായ നേതാക്കന്മാരുടെ ത്യാഗത്താൽ തീർച്ചയായും ഇവിടെ ഭാരതം സ്വതന്ത്രമായി അതിനുശേഷം ഇവിടൊരു ഭരണകൂടം നിലവിൽ വന്നു നമുക്കറിയാം നമുക്കേവർക്കുമറിയാവുന്നത് പോലെ ഈ രാഷ്ട്രത്തിൻ്റെ ശില്പികളിൽ പ്രധാനിയായിരുന്ന മഹാത്മജിയുടെ ഒപ്പം നിന്ന് പൊരുതിയ സത്യവും അഹിംസക്കെതിരെയും പൊരുതിയ ദേശാഭിമാനിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേത്യത്വത്തിലായിരുന്നു ഇവിടെ ആദ്യമൊരു ഭരണകൂടം ഇന്ത്യയിൽ സ്ഥാപിതമായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയെന്ന നിലയിൽ ഇന്ന് ലോകം ആദരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പണ്ഡിറ്റ്ജി ആ പണ്ഡിറ്റ്ജിയുടെ നേതൃത്വത്തിലുണ്ടായ ഭരണകൂടം ലോക രാജ്യങ്ങളിൽ തന്നെ നാൽപത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പോലും അതിനു ശേഷമുണ്ടായ അതിന് മുൻപുണ്ടായിരുന്ന രാജ്യങ്ങളേക്കാളും ഉപരിയായി ലോക രാഷ്ട്രങ്ങളിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഒരു രാജ്യത്തെ സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ധീരമായ നേതൃത്വം വളരെ പ്രജോദനം ചെയ്തു എന്നുള്ളത് വസ്തുതയാണ് വളരെ ബുദ്ധിയും വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയും വളരെ കരുതലോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ധീരനായ ഒരു പ്രധാനമന്ത്രി ആയിരുന്നു പണ്ഡിറ്റ് ജി അദ്ദേഹത്തിൻ്റെ നാളുകളിൽ ചേരിചേരാ നയങ്ങളിലും അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളുമെല്ലാം ആസൂത്രണം ചെയ്തു ഇന്ത്യയെ ഒരു വ്യാവസായിക രാജ്യത്തിൻ്റേതായ ഒരു രീതിയിൽ ആരംഭത്തിൽ തന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ രൂപീകൃതമായിട്ടുള്ള പല പല പ്രസ്ഥാനങ്ങളും പല പല ഡിപ്പാർട്ട്മെൻ്റുകളും ഇന്നും അതിൻ്റെ തുടർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ദീർഘ വീക്ഷണത്തിലൂടെ ചെയ്ത ആ ദിവസങ്ങളെയും ആ ക്ഷേമത്തേയും ഒക്കെ നമുക്ക് വളരെയേറെ ഏറെ നമുക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാവുന്നാണ് അതിന് ഇന്ത്യ എന്നുള്ള രാജ്യം ഉണ്ടായതിനു നുശേഷം നമുക്ക് അറിയാം ഈ രാജ്യങ്ങളെ കോർത്തിണക്കി ആദ്യം പണ്ട് നാട്ടുരാജ്യങ്ങളായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ ഒരു യൂണിറ്റിയാണ് ഒരു ഒരു ഒരു രാജ്യമായത് ഇന്ത്യ രാജ്യമായത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണവും ജനങ്ങളുടെ ക്ഷേമവും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ എല്ലാം ജനങ്ങൾക്ക് എത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിക്കുകയും അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും അതിന് അതിൻ്റെ തലപ്പത്ത് വരുവാൻ തക്കവണ്ണം അതിന് ഒരു ഗവൺമെൻ്റ് രൂപീകൃതമാക്കുകയും ചെയ്തു ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയിൽ എഴുതി ഇന്ത്യൻ ഭരണഘടന മാനിച്ചാണ് ഇവിടെ ഇന്ത്യാ രാജ്യം മറ്റ് സ്റ്റേറ്റുകളെയുമെല്ലാം ഉൾക്കൊള്ളുന്നത് ആ സ്റ്റേറ്റുകൾ ആ സ്റ്റേറ്റുകളിലും ഒരു മുഖ്യമന്ത്രി എന്നുള്ള തലത്തിൽ ഒരു തലവനും അതിനോട് ചേർന്നുള്ള മന്ത്രിമാരും പ്രവർത്തിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ വിധ ഐശ്വര്യങ്ങളും രാജ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഗവൺമെൻ്റുകളുടെ പ്രവർത്തനങ്ങളുമെല്ലാം ഈ എല്ലാ മേഖലയിലും എത്തുന്നതിനു വേണ്ടിയാണ് അങ്ങനെ വിഘടിച്ച് നമ്മൾ സംസ്ഥാനങ്ങൾ രൂപീകൃതമായപ്പോൾ തീർച്ചയായും സാധാരണപ്പെട്ട ആളുകളുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതിന് നമ്മുടെ സംസ്ഥാന തലങ്ങളിലും അതിനെ അതിൻ്റെ കീഴിലുള്ള ഈ പഞ്ചായത്ത് തലങ്ങളിലുമൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മുടെ ഈ ഗവൺമെൻ്റുകൾ ഈ ജനാധിപത്യ രാഷ്ട്രത്തെ ഈ ഗവൺമെൻ്റുകൾ വളരേ അധികം ശ്രദ്ധ നൽകി മുൻപോട്ട് പോകുന്നൂന്നു എന്നുള്ളത് വളരെ വസ്തുതയാണ് ഇന്ന് നിലനിൽക്കുന്ന എല്ലാ ഓരോ ഓരോ സംസ്ഥാനത്തും ഓരോ രാജ്യത്ത് തന്നെയും ഓരോ കാലങ്ങളും ഓരോ വർഷവും ഓരോ രാജ്യം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുണ്ടാവുന്ന ബഡ്ജെറ്റുകളും ആ ബഡ്ജറ്റിൽ ഉൾകൊള്ളുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ രാജ്യം രാജ്യത്ത് ഉള്ളതുപോലെ തന്നെ ഒരു പ്രധാനമന്ത്രിയും അതിനോട് ചേർന്നുള്ള മന്ത്രിമാരും ഉള്ളതുപോലെ ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരും ഉൾക്കൊണ്ടു കൊണ്ട് നമ്മടെ ക്ഷേമ താല്പര്യങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് ലോകത്തിൽ തന്നെ ഉള്ള ശ്രദ്ധേയമായ ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള സങ്കൽപ്പങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളും എല്ലാം വളരെ വളരെ നല്ല രീതിയിൽ ഈ രാജ്യത്ത് ഉണ്ടാവട്ടെ ഈ രാജ്യത്തെ എല്ലാ ക്ഷേമപ്രവർത്തനങ്ങളും ചെയ്യുന്ന എല്ലാ ഗവൺമെൻ എല്ലാ ഗവൺമെൻ്റുകൾക്കും അതിയാ അവർക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ ആശംസകളും ഈ സമയത്ത് അർപ്പിക്കുകയും ചെയ്യുന്നു